ഞാൻ താമസിക്കുന്ന സ്ഥലം ഏറ്റുമാനൂര് പേരൂരെന്നു പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആ പ്രദേശം ഞങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സ്ഥലമെന്ന് പറയാണെങ്കിൽ ഞങ്ങടെ മീനച്ചിലാറിൻ്റെ ആ തീരങ്ങളാണ് വളരെയധികം മനോഹരമാണ് ഒത്തിരി സഞ്ചാരികളൊക്കെ അവിടെ വരുന്ന സ്ഥലമാണ് അവിടെ ത ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് അല്ലാണ്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് പിന്നെ പറയുകയാണെങ്കിൽ ട്രക്കിങ്ങിന് പോകാനുള്ള സൗകര്യമുണ്ട് പിന്നെ അവിടുത്തെ ആ പ്രദേശത്തെ ഏറ്റവും സ വിനോദസഞ്ചാരികൾ നേരിടുന്ന വെല്ലുവിളിയെന്ന് പറയാണെങ്കില് ഈയൊരു സമയത്താണെങ്കിൽ മഞ്ഞ് മഞ്ഞ് ഒരു രാവിലെ മഞ്ഞ് ഒരുപാടുള്ള സമയമാണ് അപ്പോൾ അത് കാരണം എന്താ കാഴ്ചകൾ കാണാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് രാവിലെ സമയത്ത് പിന്നെ തണുപ്പ് പലർക്കും തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് ത അപ്പോഴത്തെ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ തി ആറിൻ്റെ തീരം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചേറിൻ്റെ സ്മെല്ലൊക്കെ വന്ന് അവ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു പ്രശ്നമുണ്ട് പിന്നെ ഭക്ഷണമെന്ന് പറയുമ്പോഴും കൂടുതൽ ആറ്റ്മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആറ്റു മീൻ ഞണ്ട് കക്ക അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് അവിടെയുള്ളവർക്ക് ഭക്ഷ കഴിക്കാനായിട്ട് കൊടുക്കാറ് പിന്നെ ഗതാഗതസൗകര്യമെന്ന് പറയുമ്പോൾ ഈ ബോട്ടിംഗ് മാത്രമാണ് അവർക്ക് ഏക ഗതാഗത മാർഗ്ഗമായിട്ട് പറയാനുള്ളത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമെന്ന് പറയുമ്പത് ആറിൻ്റെ തീരത്ത് വേസ്റ്റെക്കെ നിക്ഷേപിക്കുന്നത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ ബോട്ടിങ്ങിൻ്റെ സൗകര്യം വളരെ കുറവാണ് പിന്നെ പറയാണേൽ പിന്നെ തീരദേശത്ത് താമസിക്കുന്ന തീരത്ത് ആറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് പുതിയ മറ്റുള്ള നാട്ടിൽ നിന്നൊക്കെ ആൾ വന്ന് അത് അവിടെയൊക്കെ കാണുന്നത് അവിടെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ അവർ അങ്ങെനെയുള്ള നാട്ടുകാർ അവർക്ക് തീ തീരെ ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ് കാണുന്നത്